ഹലോ പറഞ്ഞോളൂ

ആ അതെ പറഞ്ഞോളൂ ആ ഓക്കെ ഓക്കെ സാർ എവിടുന്നാണ് വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് അല്ലേ ഓക്കെ നമുക്ക് ഇപ്പോൾ വയനാട്ടിൽ പൊതുവെ ഇപ്പോൾ കറങ്ങാനുള്ള സ്ഥലമെന്ന് പറയാനാണെങ്കിൽ കുറവാ ദ്വീപ് ബാണാസുര ഡാം കാരാപ്പുഴ ഡാം പിന്നെ എടയ്ക്കൽ കേവ്സ് കുളഗ പാറ ഓഫ് റോഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് അമ്പലവയൽ ആ സ്ഥലത്തൊക്കെ അത്യാവശം ട്രാ ട്രാക്ക് ടൈപ്പ് സ്ഥലങ്ങളൊക്കെയുണ്ട് ആ അമ്പുകുത്തി മല എങ്ങനെയാ ഓഫ് റോഡ് ബൈക്കും കൊണ്ടാണോ ആ ആ ഓക്കെ ഓക്കെ നമുക്ക് മനസ്സിലായി മനസ്സിലായി ആ ഓക്കെ വ അപ്പോൾ ആ ഓക്കെ ഇപ്പം മനസ്സിലായി അപ്പം ഞാൻ പറഞ്ഞത് പോലെ തന്നെ അമ്പലവയലിലൊക്കെ നമുക്ക് അങ്ങനത്തെ ട്രാക്കുകളൊക്കെയുണ്ട് ആ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇല്ലില്ല അം അമ്പലവയൽ ആണെങ്കിൽ നമുക്കങ്ങനെ ആവശ്യമില്ല അവിടെ ചെറിയെ എന്താണ് എന്താണ് നമ്മൾ ഒന്ന് സംസാരിച്ച് നോക്കാം അവരോട് അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങൾ അനുസരിച്ച് ചെയ്ത് തെരും ആ ഓക്കെ ഓക്കെ അത് നമുക്ക് അവിടെ ചെയ്ത് തരാം ആ ആ ഹാ ഹാ അപ്പം എത്ര പേരുണ്ടാവും പതിനഞ്ച് പേർ അടുത്ത് അല്ലേ അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറേഞ്ച് ചെയ്ത് തരണോ ഫുഡ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണോ അക്കോമഡേഷനോ ആ ഓക്കെ ഓക്കെ ആ നിങ്ങൾ എന്നത്തേക്കാണ് എത്തുന്നതെന്ന് പറയാൻ പറ്റുമോ രണ്ട് ദിവസത്തിനുള്ളിൽ വരും അല്ലേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ വരുന്നതിന് ഒരു ആ ഒരു ദിവസം മുമ്പ് ഞങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് കറക്റ്റ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തരാം അപ്പോൾ ഓഫ് റോഡിന് പറ്റിയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് വേണ്ട ഏതൊക്കെ സ്ഥലങ്ങൾ ആണെന്ന് പറഞ്ഞ് വെച്ചുകഴിഞ്ഞാൽ അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും